ഹലോ ആ ഞാന് എൻ്റെ മോൻ്റെ പേര് ജോസഫ്ന്നാണെ അപ്പോള് അവൻ്റെ അവന് പത്താം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ അവനെയും കൊണ്ട് ഞങ്ങള് ഫാമിലി ടൂര് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോള് ഒരു നാല് ദിവസത്തെ ടൂറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോള് മേഡം ഒന്ന് അനുവദിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അതെ അവൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത്

ആ സോറി മാഡം എന്താണ് മോൻ്റെ പേര് ജോസ് മോൻ്റെ പേര് ജോസഫ് വർഗീസ് അവന് പഠിത്തത്തിൽ അവൻ നൈൺറ്റി എബൗവ് മാർക്കുണ്ട് പക്ഷെ ഇപ്പോള് അവൻ്റെ ഫാദര് ദുബൈയിലാണ് വന്നിട്ടുണ്ട് അപ്പോള് കുട്ടികളെ കൂട്ടിയൊന്ന് ഔട്ടിങ്ങിന് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോള് മേഡത്തിനോട് ചോദിക്കുന്നത് ആ ഒരാഴ്ച കഴിയുമ്പോള് തിരിച്ചു പോവാനിരിക്കുകയാണ് അപ്പോള് കുട്ടികൾക്ക് ഒരു ആഗ്രഹം ആ ഫാദറിൻ്റെ കൂട്ടത്തില് പുറത്തോട്ട് പോകണമെന്ന് ഒരാഗ്രഹമുണ്ട് പഠിത്തത്തിൽ ഉഴപ്പാതെ ഞാൻ നോക്കിക്കോളാം നോട്ട്സൊക്കെ എഴുതിയെടുത്തോളാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്

ആ ശരി ആ ശരിയാണ് മേഡം പക്ഷെ അവന് ഓൺലൈൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്

ഓക്കെ ശരി ആ തീർച്ചയായിട്ടും മേഡം ഞങ്ങളങ്ങനെ തന്നെ ചെയ്തോളാം അവന് ഓൺലൈൻ ട്യൂഷനൊക്കെ ഉണ്ട് അപ്പോള് അതുകൊണ്ട് പോവുന്ന സ്ഥലത്താണെങ്കിലും ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തോളാം ഇല്ല ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഒത്തിരി നന്ദി മേഡം ഓക്കെ ശരി ഓക്കെ ഹലോ മേഡം ആ ഡേ ഡേറ്റ് ഈ അടുത്തയാഴ്ച ഒന്നാം തീയതി മുതല് പോകാനാണ് നാലു ദിവസത്തേന് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോള് ആ ആ അ അഞ്ചാംതീയതി മുതല് സ്കൂളിൽ ഉറപ്പായിട്ടും വന്നിരിക്കും ഓ തീർച്ചയായിട്ടും നോട്ടൊക്കെ എഴുതിയെടുക്കും അവൻ പഠിച്ചോളാൻ ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം മാർക്ക് കുറയാതെ നോക്കിക്കോളാം ഇല്ല ഇല്ല ഇല്ല യാത്ര ചെയ്യാൻ കുഴപ്പാമൊന്നുമില്ല ഓക്കെ ഓക്കെ ശരി മേഡം താങ്ക്യു